ഇപ്പോൾ എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കൃഷിക്കും ഓരോ വിളവ് ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് കൃഷി അതായത് ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ നെൽ കൃഷി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഓരോ ടൈം ശ്രദ്ധിക്കണം പിന്നെ കാപ്പി ഇത് എന്നൊക്കെ പറയുമ്പോൾ വിളവെടുക്കാനാണ് ടൈം അതായത് നടണം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വളർന്നിട്ട് നമുക്ക് അതിൽ നിന്ന് അതായത് നമ്മൾ ഇപ്പോൾ ഒരു പ്രാവശ്യം നട്ടിട്ടുണ്ടങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷത്തേക്ക് നമ്മൾക്ക് ആ ഒരു കാപ്പി തന്നെ മര്യാദയ്ക്ക് അതിൻ്റെ ചുവടൊക്കെ വൃത്തിയാക്കി ചുവടെല്ലാം അടിച്ചു അങ്ങനെ റെഡിയാക്കി വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് കാപ്പി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അതായത് കാപ്പിയിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടും അതുപോലെ തന്നെയാണ് നമ്മളെ കുരുമുളക് നമ്മൾ ഒരു ടൈമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമ്മൾ ഇപ്പോൾ അതിൻ്റെ വള്ളികൾ മരത്തിലേക്ക് കയറ്റി വിടുകയാണെങ്കിൽ അത് നല്ലോണം അത്യാവശ്യം നല്ലോണം വളമൊക്കെ ഇട്ട് പരിപാലിച്ചാൽ അത് നമുക്ക് ഓരോ വർഷം കൂടുമ്പോൾ വിളവ് തന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിനെ പരിപാലിക്കുകയും ചെയ്യണം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വേറെ പയർ വാഴ നെല്ല് അങ്ങനത്തെ കൃഷികൾക്കൊക്കെ നമ്മൾ ഓരോ ടൈം ഉണ്ട് അത് നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വർഷത്തെ വർഷം കൊണ്ട് നമ്മൾ അത് പറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതായത് പിറ്റത്തെ വർഷത്തേക്ക് നമ്മൾ വേറെ ആയിട്ട് നടണം പക്ഷേ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ കാപ്പി അതായത് വാണിജ്യ വിളകളായിട്ട് കാപ്പി കുരുമുളകൊന്നും അങ്ങനെയില്ല